ഹലോ എന്തുവാ വണ്ടി ഇത്ര സ്പീഡിൽ പോവുന്നത് അല്ല അത്രയും അത്ര സ്പീഡിൽ പോവാനും പറഞ്ഞൂ വണ്ടിക്ക് അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിൻ്റെ കാര്യം നിങ്ങൾ ഒന്ന് ആലോചിക്കണ്ടേ അവർക്ക് എന്തെലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ ഒന്ന് ആലോചിക്കണ്ടേ അതാ പറഞ്ഞത് ആ വിശ്വാസത്തിൻ്റെ പുറത്തായത് കൊണ്ടാണ് ഞാൻ വിളിച്ചു ചോദിച്ചത് ഇപ്പോൾ ഇത്രയും ഫാസ്ടില് അല്ലേ ഇത്രേം സ്പീഡിൽ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ ഈ പുറകിൽ ഇരിക്കുന്നവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്ക് പുറകിൽ ഇരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അതു കൊണ്ടും എന്തേലും ഒരു വണ്ടിക്ക് അകത്തിരിക്കുന്ന എല്ലാവരുടെയും ജീവൻ ഇപ്പം നിങ്ങളുടെ ആ ഒരൊറ്റ ഒരാളുടെ കൈയിലാണ് എന്തേലുമൊരു ബൈ ചാൻസ് എന്തേലുമൊരു അപകടമോ എന്തേലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഇത്ര ആളുടെ വീട്ടുകാരും നിങ്ങളെയെ പറയത്തുള്ളൂ എത്രയാണേലും എന്തോരം താമസിച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു എത്ര താമസിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അത് പറയാം നിങ്ങക്ക് അത് പറയാനല്ലേ പറ്റൂ കാര്യം പുറകെ ഇരിക്കുന്ന ആൾക്കാരുടെ ജീവനിൽ നിങ്ങൾക്ക് എന്തേലും വില വരുന്നുണ്ടോ അപ്പം അതൊന്നു ചിന്തിച്ചു നോക്കൂ ഇത്രയും ആൾക്കാർ ഇവിടെ പ്രാണനും പിടിച്ചു കൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഒരൊറ്റ ഒരാളുടെ കൈയിലാണ് ഇത്രയും സ്പീഡിൽ പോയി എന്തേലും ഒരു ബൈ ചാൻസ് എന്തെങ്കിലുമൊരു മിസ്റ്റേക്ക് എന്തേലും പറ്റിപ്പോയി ചെറിയ ഒരു കട്ടറിൽ ചാടിയാൽ മുമ്പിൽ പോയ ഏതേലും ഒരു വണ്ടിയിൽ എങ്ങാനും ഒന്ന് തട്ടിയാൽ മതി അന്നേരം തന്നെ വേറൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും അത്രയും സമയം വെറുതെ പോകുമല്ലേ ഓക്കെ അല്ലേ ഓക്കെ ആ ഇനി മേലാൽ ആവർത്തിക്കരുത് ഇങ്ങനെ ഈ ഇത്രയും സ്പീഡിൽ ഇനി മേലാൽ പോവാൻ ആവർത്തിക്കരുത് ഓക്കെ ഓക്കെ ഓക്കെ